ആ ഇത് ഡോക്ടർ അല്ലെ ആ ഞാൻ ഇന്നലെ രാത്രി വരുമ്പോൾ എനിക്ക് സ്കൂട്ടറിന്ന് വിണിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഹെൽമെറ്റ് ഒക്കെ ഇട്ടിന് ആയിരുന്നു അപ്പം തെറിച്ച് വീണപ്പം ഹെൽമെറ്റ് ലൂസ് ആയി താഴെ വീണ് അപ്പം നെറ്റി ചെറുതായിട്ട് കല്ലിൽ തട്ടി ഇരുന്നു അപ്പം അന്ന് ഇല്ല ഇല്ല അപ്പം കുഴപ്പം ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി പിന്നെ രാത്രി കിടന്നപ്പോഴാണ് വേദന തുടങ്ങിയത് അപ്പം നല്ല വേദന ഉണ്ട് മുറിവ് ഇത് ഒന്നും കാണാനൊന്നും ഇല്ല അപ്പം എൻ്റെ ബ്രദറ് ഡെൻ്റൽ ഡോക്ടർ ആയിരുന്നു അപ്പം അവർ ഇങ്ങനെ എൻ്റെ ബ്രദറ് ഡെൻ്റൽ ഡോക്ടർ ആയിരുന്നു അപ്പം അവർ ഇങ്ങനെ കണ്ടപ്പം പറഞ്ഞു പിന്നെ ബ്ലഡ് ഒന്നും പോയിട്ടില്ലല്ലോ അപ്പം ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ആയിപ്പോവും അപ്പം എന്തായാലും ഒന്ന് ഒരു ഡോക്ടറ കാണിക്കുന്നതാണ് നല്ലതെന്ന് ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ വിളിച്ച് നോക്കിയതുകൊണ്ട് ഇല്ല ഇല്ല ഇല്ല അപ്പം കുഴപ്പം ഒന്നും ഇല്ലായിരുന്നു അപ്പം നേരെ വീട്ടിലേക്ക് പോയി രാത്രി ആണ് വേദന തുടങ്ങിയത് ആ ഇപ്പം നല്ല വേദന ഉണ്ട് ആ ആ ആ

അവിടെ എങ്ങനെയാണ് ബുക്ക് ചെയ്യൽ ആണോ ഓക്കെ ഇന്ന് ബുക്ക് ചെയ്തിട്ട് നാളെ കാണിക്കേണ്ടി വരും അല്ലെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ആ ആ ഓക്കെ ആ ആ ഒക്കെ ആ ആ ഓക്കെ ആ ഇപ്പം നല്ല വേദന ഉണ്ട്

ആ ഓക്കെ ഡോക്ടറെ ആ നാളെ വരാം ഓ ആ വൈകുന്നേരം വരാം താങ്ക് യൂ ഡോക്ടർ